അടുത്തുള്ള കോളേജുകളില് മിക്കവാറും എല്ലാ കോളേജുകളിലും തന്നെ അതിനുള്ള കോഴ്സുകളെല്ലാമുണ്ട് എം എസ് ഡബ്ള്യു ഡിഗ്രി കോഴ്സുകളും പിന്നെ മറ്റ് കമ്പ്യൂട്ടർ കോഴ്സുകള് അങ്ങനെ എല്ലാ കോഴ്സുകളും കുട്ടികൾക്ക് ലഭ്യമാണ് അടുത്ത് ഉള്ള പ്രധാനപ്പെട്ട കോളേജെന്ന് പറയുന്നത് പരാത്മ കോളേജാണ് അതുപോലെ പിന്നീടുള്ളതും കോളേജും പിന്നീട് ഇൻഡിപ്പെൻഡൻറ്റ് കോളേജുകളായ മാർസിലിയ കോളേജ് മറ്റ് കട്ടപ്പനയിലുള്ള സെൻറ്റ് സെബാസ്റ്റിയൻ കോളേജ് ദീപ്തി കോളേജ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കോഴ്സുകളുണ്ട് ഡിഗ്രി കോഴ്സുകളെല്ലാം തന്നെയുണ്ട് അതുകൂടാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എം എസ് ഡബ്ള്യു കോഴ്സുകള് പിന്നെ എം എസ് സി ബി എസ് സി അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കോഴ്സുകളെല്ലാം തന്നെ കുട്ടികൾക്ക് ലഭ്യമാണ് അതുമൊക്കെ കുട്ടികൾക്ക് മറ്റു സ്ഥലങ്ങളിൽ പോയി പഠിക്കേണ്ടതുണ്ട് കാരണം മറ്റ് ഇവിടെ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കാതെ വരുന്നു പിന്നെ പണത്തിൻ്റേതായ കുറവുകളൊക്കെ മൂലം തമിഴ്നാട് പോലെയുള്ള മറ്റേ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ കുട്ടികള് പോയി പഠിക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് ഈ കോളേജുകളിലെ അമിതമായ ഫീസുകളും അതിൻ്റെ പഠനച്ചെലവുകളുമൊക്കെ വഹിക്കാനായിട്ട് കുട്ടികൾക്ക് പലപ്പോഴും സാധിക്കാത്തതുകൊണ്ട് കുട്ടികള് പുറത്തേക്ക് പോകുന്നുണ്ട് നേഴ്സിംഗ് കോളേജുകളും നേഴ്സിംഗ് കോളേജുകളുമുള്ള നേഴ്സിംഗ് കോളേജുകള് അടുത്ത് ഉണ്ടെങ്കിൽപ്പോലും അവിടെയും കുട്ടികൾക്ക് പഠിക്കാനായിട്ട് മുഴുവൻ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല കുട്ടികള് അവരുടെ അവരുടെ ഈ കോഴ്സ് പൂർത്തിയാക്കാനുള്ള പണം അവരുടെ അവർക്ക് ലഭിക്കാത്തതുകൊണ്ട് അവര് പലപ്പോഴും അതിൽ നിന്നെല്ലാം മാറി ഇത് ഇതിനെ പൈസച്ചെലവ് കുറയ്ക്കാനായിട്ട് ബാംഗ്ലൂര് തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കർണാടക സ്റ്റേറ്റിലൊക്കെ പോയി അവര് പഠിക്കാനായിട്ട് സാഹചര്യങ്ങള് കണ്ടെത്തുന്നുണ്ട് അതുപോലെ ഇത് ഈ കുട്ടികളെ പഠനത്തിനായിട്ട് പറഞ്ഞുവിടാനായിട്ട് മാതാപിതാക്കൾക്ക് വേണ്ട പണമില്ലാത്തതും ഒരു കാരണം കൊണ്ടുതന്നെയാണ് ഇങ്ങനെയുള്ള പോക്കുകള് ഒരുപക്ഷേ കുട്ടികളെ ഇത് പല പല കേരളത്തിന് പുറത്തേക്ക് പോകേണ്ടിവരുന്നത് കുട്ടികളെ പലപ്പോഴും പല തിന്മയിലേക്കും തെറ്റിലേക്കുമൊക്കെ പലപ്പോഴും നയിക്കുന്നുണ്ട് മയക്കുമരുന്നു പോലെയുള്ള ലഹരി വസ്തുക്കളുടെയൊക്കെ എം ഡി എം എ പോലെയുള്ള ലഹരി വസ്തുക്കളുടെയൊക്കെ പിടിയില് കുട്ടികള് പെട്ടുപോകാനായിട്ട് കാരണം മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ നിന്നകന്ന് കുട്ടികള് കൂട്ടുകാരുടെ കൂടെ താമസിക്കുമ്പോള് സഹപാഠികളാണവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അവര് അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താനായിട്ട് സഹപാഠികൾക്ക് സാധിക്കുന്നുണ്ട് അപ്പോള് അതുപോലെ തന്നെ മറ്റ് ലഹരി മരുന്ന് റാക്കറ്റുകളും സെക്സ് റാക്കറ്റുകളുമൊക്കെ കുട്ടികളെ വലയിൽ വീഴ്ത്തുകയും അവരതിനകത്ത് പെട്ടു പോവുകയുമൊക്കെ പലപ്പോഴും ചെയ്തുപോകാറുണ്ട് ഈ കുട്ടികള്ക്ക് വേണ്ടത്ര അവരവരുടെ അതുപോലെ തന്നെ ഇവിടെയൊന്നും പഠിക്കാനായിട്ട് കോഴ്സുകള് ഇവര് ഉദ്ദേശിക്കുന്ന കോഴ്സുകള് ലഭിക്കാത്തതുകൊണ്ടാണ് പല വിദേശ രാജ്യങ്ങളിലേക്കും കുട്ടികള് നേഴ്സിംഗ് പഠനത്തിനായിട്ട് പോകുന്നത് വിദേശങ്ങളിലേക്ക് കുട്ടികള് യു കെ യും ജർമ്മനിയും അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ന്യൂസിലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കുട്ടികള് പഠനത്തിനായിട്ട് പോകുന്നത് തന്നെ അവർക്ക് വേണ്ടത്ര കോഴ്സുകളില്ല ഉള്ള കോഴ്സുകളൊന്നും ഇവർക്ക് താല്പര്യമില്ലാത്ത കോഴ്സുകളായിരിക്കാം അതുകൊണ്ട് പലപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികള് പോകാറുണ്ട് അത് നമ്മുടെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന കുട്ടികള് അവിടെ പഠനത്തിനായിട്ടും പോകുന്ന കുട്ടികള് അവിടെ അവിടെത്തന്നെ പഠിച്ച് അവിടെത്തന്നെ ജോലിയില് പ്രവേശിക്കുകയും അവര് തന്നെ അവര് കുടുംബജീവിതം അവിടെത്തന്നെ നയിക്കുകയും അവര് സെറ്റിലാകുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് കേരളത്തിലുള്ള ആളുകള് പൊതുവെ കുറഞ്ഞുപോവുകയാണ് ചെറുപ്പക്കാര് മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്കും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോള് കേരളത്തിന് കേരളത്തിലുള്ള യുവജനങ്ങള് യൂത്തൊക്കെ പലപ്പോഴും കുറഞ്ഞുപോകുന്നുണ്ട് അത് ഒരുപക്ഷേ കേരളത്തിൻ്റെ ഒരു പിന്നീട് ഈ കേരളത്തില് താമസിക്കുന്ന എല്ലാ ആളുകളും രോഗികളായിട്ടുള്ളവരും പ്രായമായിട്ടുള്ള മാതാപിതാക്കളും മാത്രമാണ് കുടുംബങ്ങളിലാണെങ്കില് അപ്പനും അമ്മയും മാത്രമാണ് പലപ്പോഴുമുള്ളത് ബാക്കി കുട്ടികളെല്ലാം പല സ്ഥലങ്ങളിലേക്ക് പഠിക്കാനും ജോലിക്കുമൊക്കെയായിട്ട് പോകുന്നു അപ്പോള് ഈ പഠനം അവിടെത്തന്നെ അവിടെത്തന്നെ വിദേശങ്ങളിലോ അതോ മറ്റ് മറ്റ് സ്റ്റേറ്റുകളിലോ ഒക്കെ നടത്തുമ്പോള് കുട്ടികള് അവിടെത്തന്നെ ആയിരിക്കാനായിട്ടാണ് അവർക്കവിടെ ജോലിസാധ്യതകള് കൂടുതലുണ്ട് ഇവിടെ വേണ്ട ജോലിസാധ്യതകളും ജോലിസാധ്യതകളുണ്ടെങ്കിലും അത് ഈ കോഴ്സുകളുടെ അപര്യാപ്തത മൂലവും കോഴ്സുകള് വേണ്ടത്ര പണം കൊടുത്ത് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് സാഹചര്യങ്ങളില്ലാതെയൊക്കെ വരുമ്പോള് അത് ഒരുപക്ഷേ കുട്ടികളെ മറ്റു സ്ഥലങ്ങളിലേക്ക് പണം പലിശയ്ക്ക് കടമെടുത്തും അതുപോലെ ലോണെടുത്തുമൊക്കെ കുട്ടികള് മറ്റ് സ്ഥലങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും പോകുന്നത് തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടത്ര കോഴ്സ് പല തരത്തിലുള്ള കോഴ്സുകള് കുട്ടികളുദ്ദേശിക്കുന്ന പലതരത്തിലുള്ള കോഴ്സുകളും ഇവിടെ ലഭിക്കുന്നില്ല സാധാരണയായിട്ട് പണ്ട് മുതലേയുള്ള കുറച്ച് കോഴ്സുകൾ ഡിഗ്രി കോഴ്സുകളും പിന്നെ അതുപോലെ തന്നെ എം എസ് ഡബ്ള്യു പോലെയുള്ള കുറച്ച് കോഴ്സുകളും അങ്ങനെയൊക്കെയാണ് മാത്രമാണുള്ളത് അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടത്ര പഠന സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ടുതന്നെ അവര് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് കോളേജുകളുണ്ടെങ്കിലും കോളേജുകളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയും അവർക്ക് പുതിയ പുതിയ കോഴ്സുകളും പുതിയ പുതിയ സാഹചര്യങ്ങളും കുട്ടികൾക്ക് ഒരുക്കിക്കൊടുക്കുകയാണെങ്കില് കുട്ടികള് നമ്മുടെ ഈ നമ്മുടെ കേരളത്തില് തന്നെ ആയിരിക്കാനും തുടർപഠനത്തിനായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുകയുമൊക്കെ ചെയ്യും തുടർപഠനത്തിനായിട്ട് കുട്ടികള് പോകുമ്പോള് അത് നമ്മുടെ തന്നെ സമ്പദ് വ്യവസ്ഥയെയൊക്കെയാണ് ബാധിക്കുക അവിടെ ജോലി ചെയ്യുന്ന കുട്ടികള് അവിടെത്തന്നെ ജീവിച്ച് അതുപോലെ തന്നെ പഠനം കഴിഞ്ഞ് അവരവിടെ ജോലി ജോലി സമ്പാദിക്കുകയും അവിടെത്തന്നെ ജീവിക്കുകയുമൊക്കെ ചെയ്യുമ്പോള് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഒരു കോട്ടം വരുന്നുണ്ട് പലപ്പോഴും കേരളത്തിലേക്ക് പിന്നീട് വരാനായിട്ട് ആളുകളാഗ്രഹിക്കുന്നില്ല ജോലിസാധ്യത ഇല്ലാത്തതും മറ്റ് പഠനത്തിനുള്ള സാധ്യതകളില്ലാത്തതുമൊക്കെ അതിന് പ്രധാനപ്പെട്ട കാരണമാണ് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം സർക്കാർ സംവിധാനങ്ങള് കുട്ടികൾക്ക് വേണ്ടത്ര സൗകര്യങ്ങളൊരുക്കിക്കൊടുക്കുക പുതിയ പുതിയ കോഴ്സുകളും പുതിയ പുതിയ സാഹചര്യങ്ങളും ഒരുക്കിക്കൊടുത്താല് മാത്രമാണ് കുട്ടികളെ ഇവിടെ തന്നെ നമുക്ക് നിർത്തിക്കൊണ്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ കുട്ടികളുടെ പഠനം ഈ പ്ലസ് ടു വരെ കുട്ടികള് ഇവിടെ പഠിക്കുമ്പോള് ഹയർ സെക്കൻണ്ടറി വിദ്യാഭ്യാസം നേടിയ കുട്ടികള് എല്ലാവരും തന്നെ ജർമ്മൻ ഭാഷകള് അല്ലെങ്കില് വിവിധ ഭാഷകള് പഠിച്ച് ആ സ്ഥലങ്ങളിലേക്ക് പോകുന്നു കുറെയധികം പേര് ന്യൂസിലൻഡ് പോലെയുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒരു തുടർപഠനത്തിനായിട്ട് കടന്നുപോകുന്നുണ്ട് ന്യൂസിലൻഡ് ബ്രിട്ടൺ യു കെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോള് കുട്ടികള് പിന്നീടിങ്ങോട്ട് തിരിച്ചുവരാനായിട്ട് അവിടുത്തെ അതിന് കാരണം തന്നെ പ്രധാനപ്പെട്ട അവിടുത്തെ ജീവിതസാഹചര്യങ്ങളും ജീവിതസൗകര്യങ്ങളുമൊക്കെ കുട്ടികളെ കൂടുതലായിട്ട് ആകർഷിക്കുന്നുവെന്നുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ ഇവിടെയാകുമ്പോള് അതുപോലെ മോഡേൺ ഡ്രസ്സുകള് ധരിച്ച് നടക്കാം അതുപോലെ മോഡേണായിട്ടുള്ള ഫുഡുകള് കഴിക്കാം സുഹൃദ്ബന്ധങ്ങളൊക്കെ അവിടെ എല്ലാമാകുമ്പോള് കുട്ടികളാരും ഇങ്ങോട്ട് തിരിച്ചുവരാനായിട്ട് സാധ്യതകളില്ല അപ്പം നമ്മുടെ എല്ലാ കോളേജുകളിലും കേരളത്തിലുള്ള കോളേജുകളിലെല്ലാം തന്നെ പുതിയ പുതിയ കോഴ്സുകൾ തുടങ്ങുകയും കുട്ടികളെ ഇവിടെ തന്നെ പിടിച്ചുനിർത്താനായിട്ടുള്ള സാഹചര്യങ്ങളൊരുക്കി കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത് സർക്കാരും മറ്റ് സംവിധാനങ്ങളുമൊക്കെ ചെയ്യേണ്ടതുണ്ട് അത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങള് കുറഞ്ഞ് പോകുന്നതുകൊണ്ടാണ് ഒരുപക്ഷേ കുട്ടികളെല്ലാം മറ്റ് സാധ്യതകൾ തേടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുക അപ്പോള് കോഴ്സുകള് പണ്ടുണ്ടായിരുന്ന കോഴ്സുകള് മാത്രമാണ് ഇപ്പോഴും കോളേജുകളിലുള്ളത് അത് കോളേജുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യുകയും പുതിയ പുതിയ സാഹചര്യങ്ങളും സാധ്യതകളും കുട്ടികൾക്കൊരുക്കാനായിട്ട് പുതിയ പുതിയ ടെക്നോളജിയുടെ വികസനമൊക്കെ മൂലം അതെല്ലാം കുട്ടികൾക്ക് പഠനത്തിനായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പുതിയ പുതിയ കോഴ്സുകൾ ഓരോ കോളേജുകളിലും ആരംഭിക്കുകയാണെങ്കിൽ അതിനുള്ള അംഗീകാരം അതിനുള്ള സാധ്യതകളെല്ലാം സർക്കാര് ഒരുക്കിക്കൊടുക്കുകയാണെങ്കില് ഈ കുട്ടികളൊന്നും പുറം രാജ്യങ്ങളിലേക്കോ അല്ലെങ്കില് മറ്റ് സ്ഥലങ്ങളിലേക്കോ പഠനത്തിനായിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല അതിന്റെയൊരു കുറവ് പ്രധാനമായിട്ട് നമ്മുടെ ഈ കൊച്ചു സ്ഥലങ്ങളിലൊക്കെയുണ്ട് ഇവിടെ ഈ ഇടുക്കി ജില്ലയാണെങ്കിൽപ്പോലും ഇടുക്കി ജില്ലയിലുള്ള പ്രധാനപ്പെട്ട കോളേജെന്ന് പറയുന്നത് പാവനാത്മ കോളേജും നിർമ്മല കോളേജുമാണ് ആ രണ്ട് കോളേജ് കഴിഞ്ഞിട്ട് മറ്റ് കോളേജുകളിലേക്ക് ഇവിടെ നിന്ന് ഒരുപാട് കുട്ടികള് പോകുന്നുണ്ട് അതായത് മറ്റ് ജില്ലകളിലേക്ക് പോകുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അതിൻ്റെയെല്ലാം പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് വേണ്ടത്ര കോഴ്സുകളില്ല കോഴ്സുകളുണ്ട് പക്ഷേ ആ കോഴ്സുകളൊന്നും കുട്ടികളുടെ ഭാവിയെ കരുപ്പിടിപ്പിക്കാൻ പറ്റുന്ന അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള പുതിയ തലമുറയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള കോഴ്സുകളല്ലാത്തത് കൊണ്ടാണ് കുട്ടികളതെല്ലാം ഇട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് ജില്ലകളിലേക്കുമൊക്കെ പോകുന്നത് കൂടുതലായിട്ടും തുടർപഠനത്തിന് കുട്ടികളെ ഇവിടെത്തന്നെ നിർത്തണമെങ്കില് കുട്ടികളിവിടെത്തന്നെ ആയിരിക്കണമെങ്കില് അവർക്ക് വേണ്ട പഠനസംവിധാനങ്ങളും പഠനസാധ്യതകളും ഒരുക്കുകയാണ് വേണ്ടത്